വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കോഴിക്കോട് ജില്ലാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മുൻപോട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീല് ചെയ്യാറുണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇവിടെ നമുക്ക് എന്തും പഠിക്കാൻ ഉള്ളത് ഉണ്ട് ഇപ്പം ഒരു പ്ലസ് ടു കഴിഞ്ഞു എന്ന് വിചരിച്ചോ പത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞൊരു തോറ്റ കുട്ടിയാണ് അല്ല കുറച്ച് കാലമായി മാരീടൊക്കെയായ ഒരു വ്യക്തിയാണെന്ന് വച്ചാൽ അവർക്ക് ഫാഷൻ ഡിസൈനിങ്ങ് കമ്പം ഉണ്ടെങ്കിൽ രണ്ട് വർഷത്തെ കോഴ്സുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ എങ്കിലുമൊക്കെ ജോലി കിട്ടാൻ പറ്റും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടവര് എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതവരുടെ വളർച്ചയ്ക്കും അവിടെ എത്ര കുട്ടികള് ഓരോ കാര്യത്തിനും പഠിക്കാൻ വേണ്ടി എഴുതുന്നുണ്ട് മറ്റ് ജില്ലയിൽ നിന്ന് നോക്കണം കോളേജ് നല്ല നല്ല കോളേജുകളുണ്ട് ഫേമസായ ഒത്തിരി കോളേജുകളുണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ പഠന രീതികളുവുണ്ട് അതായത് വിദ്യാഭ്യാസത്തിനെ അവർക്ക് ഏതിലാണോ സ്പെഷ്യല് ചെയ്യുന്നത് അവര് എന്താണോ ആഗ്രഹിക്കുന്നത് അവർക്കേതിലാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ആ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ്ങ് ആയിട്ടുള്ളത് ഉണ്ട് കമ്പ്യൂട്ടർ കോച്ചിങ്ങ് ഉണ്ട് ഡിഗ്രി ഉണ്ട് പിന്നെ നമ്മുടെ ഹിന്ദിയുടെ കോളേജ് വരുന്നത് നമുക്ക് കോഴിക്കോടുണ്ട് ഒരു ഹിന്ദി കോളേജുണ്ട് മഹാത്മാ കോളേജുണ്ട് അങ്ങനെ കുറെ കുറെ ഉണ്ട് കുറെ ഇൻസ്റ്റ്യൂട്ടുകളുണ്ട് നല്ല നല്ല ഇൻസ്റ്റ്യൂട്ടുകള് അത് മറ്റ് ജില്ലക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ട് അവിടെയുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് നല്ല വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മുന്നോട്ട് വന്നിട്ടുണ്ട് കോഴിക്കോട്